മറക്കാനാകാത്തൊരു അനുഭവമെന്നു പറയുന്നതു വർഷങ്ങൾക്കുമുൻപ് ഇപ്പോള് എൻ്റെ ഹസ്ബൻഡായിരിക്കുന്ന ആള് ഹസ്ബൻഡ് ആവുന്നതിനു മുന്നേ ചെറിയൊരു കറക്കമുണ്ടായിരുന്നു ഞങ്ങള് വയനാട്ടിലേക്കായിരുന്നു ട്രിപ്പ് വീട്ടിലൊന്നും പറയാതെ ഒരു പോക്കങ്ങു പോയി അതു നമ്മുടെ പണ്ടത്തെ യമഹ യമഹ എടുത്തിട്ടായിരുന്നു നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു കുറച്ച് ലോങ് ട്രിപ്പായിരുന്നു അത് വയനാട്ടിലേക്കായിരുന്നു യാത്ര ബൈക്കില് സത്യം പറഞ്ഞാല് നല്ല അടിപൊളി ബാക്ക് പെയിനാണ് ബൈക്കില് പോയിട്ടുണ്ടെങ്കില് പക്ഷെ നമ്മള് സൂപ്പർ വൈബാണ് ബൈക്കില് പോയാല് ഏറ്റവും നല്ല വൈബാണ് നല്ല കോടയും മഴയും ഫുള് പെരു വയനാട് ചുരം കയറുമ്പോഴത്തേനു തൊട്ടു നല്ല പെരും മഴ ഫുള് കോട ഒന്നും കാണാന്മേലാ ബൈക്കിന് നല്ല അടിപൊളിയട്ട് മഴ നനഞ്ഞു നല്ല സൂപ്പറായിരുന്നു ബൈക്ക് യാത്ര തിരിച്ചു വരുന്ന വഴിക്ക് ബൈക്കൊന്ന് സ്റ്റക്കായി ഞങ്ങള് ചെറിയ റിസോർട്ടിൻ്റെ അടുത്തുവച്ചൊരു ബൈക്ക് സ്റ്റക്കായി പിന്നെ അത് ശരിയാക്കി അവിടെത്തന്നെ ശരിയാക്കി ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു അങ്ങനെ തിരിച്ചു പോന്നു അതാണ് മനസ്സിലുള്ള മറക്കാൻ പറ്റാത്തൊരു ബൈക്കില് ട്രാവല് പിന്നെ അങ്ങനെ ബൈക്കില് അങ്ങനെയൊന്നും യാത്ര പോയിട്ടില്ല